ശരീരഭാരം കുറക്കാനായിട്ട് നാട്ടുവൈദ്യങ്ങളുള്ളതായിട്ടൊന്നും എനിക്കറിയില്ല ഇപ്പം സാധാരണ ആൾക്കാരൊക്കെ ശരീരഭാരം കുറക്കാൻ വേണ്ടിയിട്ട് അവർ യൂട്യൂബ് പോലെയുള്ള മാധ്യമങ്ങളിലൂടെ ആണ് ചെയ്യുന്നത് പിന്നെ അതുപോലെത്തന്നെ ജിമ്മിൽ പോവുക ഭക്ഷണം ഡയറ്റ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെന്ന് വേണ്ട ഇനി ചോറ് അധികം കഴിക്കുന്നത് ഉണ്ട് വണ്ണം വയ്ക്കുന്നുണ്ട് മാധുരം കൂടുതൽ കഴിക്കുന്നത് ആളുകൾ കുറക്കുന്നുണ്ട് അങ്ങനെ ജിമ്മിലും അതുപോലെ ഡയറ്റീഷൻ്റെ ഒക്കെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പം ആൾക്കാർ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് നാട്ടുവൈദ്യം മൂലം അതിലെന്തെങ്കിലും നാട്ടുവൈദ്യം ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂട ഉണ്ടോ എന്നു അറിഞ്ഞുകൂട ഇപ്പം ഒരുപാട് ഭക്ഷണം ഒക്കെ ക്രമീകരിക്കുകയും ഒരു ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ അത് ചെയ്യാൻ ആൾക്കാർ ഒരുപാട് പേർ അങ്ങനെ ചെയ്യുന്നുണ്ട് അതുപോലെ കുറേ പേര് ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ആ എക്സസൈസ് ആയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഒന്നും ജിമ്മിലൊന്നും പോകാനായിട്ട് സാധിക്കില്ലല്ലോ ജിമ്മിൽ ഒന്നും അടുത്തൊന്നും ഇല്ലാത്തവർക്ക് അത് സാധിക്കില്ലാത്തതുകൊണ്ട് അവരിങ്ങനെ മാധ്യമങ്ങളിൽ കൂടിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നാട്ട് വൈദ്യങ്ങളും കാണുമായിരിക്കും പഴയ കാലങ്ങളിലെ ഒരുപാട് നല്ല നല്ല അറിവുകളും ഉണ്ടായിരിക്കും പക്ഷേ അതൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല ഭക്ഷണം ക്രമീകരിക്കുക ഡയറ്റീഷൻ്റെ നിർദ്ദേശപ്രകാരം ഭക്ഷണം കഴിക്കുക ഓരോരുത്തരും അവരവരുടെ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ ജീവിത ഭക്ഷണ കാര്യങ്ങളിലുള്ള അച്ചടക്കം പാലിക്കുക അതുപോലെ ജിമ്മിൽ പോവുക അങ്ങനെയൊക്കെ ശരീരഭാരം കുറയ്ക്കാനാണ് ആൾക്കാരിപ്പം ശ്രമിക്കുന്നത് ഇപ്പം എല്ലാവരും